നമ്മുടെ പ്രദേശത്തെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കരകൗശല വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ആ ഉണ്ടാക്കുന്ന കുറെ സ്ഥലങ്ങൾ ഒക്കെയുണ്ട് അതായത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകൾ കര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പല തരം മൺപാത്രങ്ങൾ പിന്നെ മൺപ്രതിമകൾ പിന്നെ ഇപ്പം നമ്മുടെ കാപ്പീൻ്റെ ചെടി കൊണ്ട് പക്ഷികൾ ഇരിക്കുന്ന പോലെയൊക്കെ ആക്കുക പിന്നെ തേങ്ങാൻ്റെ ഇതുകൊണ്ട് തേങ്ങേൻ്റെ മറ്റേ ചകിരി കൊണ്ട് കുരങ്ങൻ ആന അങ്ങനെ പല തരം ആർട്ട് വർക്കുകളൊക്കെ കൂടുതലായിട്ട് ചെയ്തുവരുന്നൊരു ഏരിയ ആണ് വയനാട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിൽ കൂടുതലായിട്ട് ഇതിനൊക്കെ മൂല്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് മൂല്യങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു മൂല്യങ്ങളൊക്കെയുണ്ട് അപ്പം നമ്മൾ അതിനുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് നമുക്ക് പുറംനാട്ടീന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതു വാങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷം വരും ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ അവർക്കെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് പോയത് കണ്ടിട്ട് അവർക്ക് ഇഷ്ട്ടപ്പെട്ടല്ലോന്നുള്ളൊരു കാഴ്ച്ചപ്പാടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പല തരം ചിഹ്നങ്ങൾ അങ്ങനത്തെ പല തരം കാര്യങ്ങളൊക്കെ കരകൗശലമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വയനാട്ടിൽ ഇതൊക്കെ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു സ്വത്താണ് അതായത് ഇപ്പം ഒരു കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു കഴിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ദേവീ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ഒരു പാരമ്പര്യമായിട്ടുള്ള കഴിവാണ് അവർ പാരമ്പര്യമായിട്ട് വിഗ്രഹം ഉണ്ടാക്കുന്നവരൊക്കെ ആയിരിക്കാം